എറണാകുളം ജില്ലയുടെ പ്രധാനപ്പെട്ട വ്യവസായ സ്ഥാപനങ്ങളെന്ന് പറയുന്നത് ഫെ എഫ് സിറ്റി പിന്നെയെന്താ പറയുക പ്രീമിയര് കേബില് അങ്ങനെ രണ്ട് മൂന്ന് എൺ രണ്ട് മൂന്ന് ലീഡിങ് കമ്പനികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ കാക്കാനാടാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തന്നെ പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ പൊതുമേഖല സ്ഥാപനങ്ങളിലൊക്കെ കൂടുതലായിട്ടും അ വെല്ലുവിളികള് നേരിടുന്നുണ്ട് പൊതുമേഖല സ്ഥാപനങ്ങള് നല്ല രീതിയില് വെല്ലുവിളികള് നേരിടുന്നുണ്ട് പിന്നെ സ്വകാര്യ സ്ഥാപനങ്ങളിലാണെങ്കില് സ്വകാര്യ മേഖലയില് പ്രവര്ത്തിക്കുന്ന കമ്പനികളിലൊക്കെയാണെങ്കില് പ്രധാനമായിട്ടും ഈ യൂണിയനുകൾ ഭയങ്കരമായിട്ടൊക്കെ കളിക്കുന്നുണ്ട് അതായത് എന്ന് വെച്ചാൽ തൊഴിലാളികളുടെ ആവശ്യങ്ങള് നേടിയെടുക്കാനായിട്ട് യൂണിയന്കാര് ശ്രമിക്കുന്നില്ല ഇപ്പോൾ ഒരു കമ്പനികളിൽ വര്ഷങ്ങളായിട്ട് സാലറി ഇൻക്രിമെൻറ്റൊന്നും കൊടുക്കാത്ത പല കമ്പനികളുവുണ്ട് അതായത് തൊഴിലാളികള്ക്ക് എന്ത പറയുക അവിടുത്തെ ഉല്പാദനം കുറവാണന്നവരെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ട് ഭയങ്കര കടത്തിലാണ് പോവുന്നത് കമ്പനിക്ക് ഭയങ്കര ബാധ്യതയാണെന്നൊക്കെ പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ട് സാലറി ഇങ്ക്രിമെന്റ് കൊടുക്കാത്ത പല കമ്പനികളുമുണ്ട് അപ്പം അതിനനുസരിച്ച് എന്താ തൊഴിലാളികള് സമരത്തിന് പോകുകയും പിന്നെ കുറെ നാള് ലേയോഫ് അങ്ങനെ കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ അതും നമ്മുടെ വികസനത്തെ ബാധിക്കുന്നുണ്ട് പിന്നെ മറ്റെ നമ്മുടെ പ്രാദേശികമായിട്ട് നമ്മുടെ എറണാകുളം ജില്ലയെ സംബന്ധിച്ച് പ്രാദേശികമായിട്ടുള്ളത് ഇതെന്ന് പറയുന്നത് അഗ്രിക്കള്ച്ചര് മേഖലയാണ് അപ്പം നമ്മടെ അഗ്രിക്കള്ച്ചര് മേഖല എന്ന് പറയുമ്പോൾ നം എന്താ പറയും ഇപ്പം പല കൃഷി സ്ഥലങ്ങളും നമ്മള് നികത്തി ഫ്ലാറ്റുകളും കെട്ടിട സമുച്ചയങ്ങളൊക്കെ പണിയുക ഷോപ്പിംഗ് കോമ്പ്ലെക്സുകളൊക്കെ പണിതോണ്ടിരിക്കുകയാണ് അപ്പം അതിനൻസരിച്ച് നമ്മുടെ കാര്ഷിക മേഖലയുടെ വരുമാനവും കുറഞ്ഞ് പോവുന്നു ആ പിന്നെ ഫിഷറീസ് അവിടെ ആ മേഖലയിലാണെങ്കിലും മത്സ്യങ്ങള് പല മത്സ്യങ്ങളും വംശനാശ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പം ഈ പ്രചരണ സമയത്ത് ഗവണ്മെന്റ് ട്രോള്ളിംഗ് നിരോധനമൊക്കെ ഏര്പ്പെടുത്തുന്നത് ഒര് പരിധി വരെ ഇത് കുറയ്ക്കുന്നുണ്ട് എങ്കിൽ കൂടിയും അനധികൃതമായിട്ടുള്ള മീന് പിടിത്തവും എല്ലാം നമ്മുടെ ഇതിനെ ഈ ഫിഷറീസ് മേഖലയ്ക്ക് ഭീഷണിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിനോട് അനുബന്ധിച്ചുള്ള വ വ്യവസായങ്ങള്ക്കും അതൊരു ഇത് ഇതായിട്ട് വരുന്നുണ്ട് ആ പിന്നെ പറയുന്നത് നമ്മുടെ ഇത് കയറ് മേഖല അത് അതും വളരെയധികം ഭീഷണി അതായത് പണ്ടത്തെ ഒര് ഇതൊന്നുവില്ല ഈ കയറ് മേഖല എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കയറ് മേഖല എന്ന് എന്ന് വെച്ചാൽ കയറ് വ്യവസായം അപ്പോൾ അതിലേക്ക് വരുന്നത് മെയ്നായിട്ട് നമ്മള് ചകിരി കൊ ചകിരി ഉപയോഗിച്ചിട്ടാണല്ലൊ അപ്പോൾ ഇവിടെ പണ്ട് നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ കേരങ്ങളുടെ നാടായിരുന്നു കേരം തിങ്ങി നിറഞ്ഞ് വളരുന്ന നാടാണ് നമ്മുടെ കേരളം അതുകൊണ്ടാണ് കേരളമെന്നുള്ള പേര് തന്നെ വന്നത് പക്ഷെ ഇപ്പോൾ തെങ്ങിന്റെയൊക്കെ തെങ്ങ് നാളികേരത്തിന്റെ ഉല്പാദനം വളരെ ഗണ്യമായിട്ട് കുറഞ്ഞേക്കുവാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനോട് അനുബന്ധിച്ചുള്ള അതിനെ ആശ്രയിച്ച് നിൽക്കുന്ന വ്യവസായങ്ങള്ക്കും അതിൻറ്റേതായ രീതിയിലുള്ള കുറവ് വരുന്നു പ്രത്യേകിച്ചും ഈ കയറ് മേഖല അതും വളരെയധികം ആള്ക്കാര്ക്ക് തൊഴില് കൊടുക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്ന ഒര് മേഖലയായിരുന്നു അത് പക്ഷെ ഇപ്പം ഭയങ്കര വാ വളരെ ഗന് വളരെ തുച്ഛമായിട്ട് എന്ന് വെച്ചാൽ വളരെയധികം കുറഞ്ഞു എന്ന് തന്നെ പറയാം ആ പിന്നെ വന വന സ്രോതസ്സുകള് വന മേഖലകയിലുള്ള വന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വ്യവസായ സ്ഥാ ഇത് വ്യവസായ മേഖല അത് അതെന്ന് പറയുന്നതും മനുഷ്യരുടെ കയ്യേറ്റം മൂലം പല വന്യമൃഗങ്ങള്ക്കും വംശനാശ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്നു വന സ്രോതസ്സുകള് വന വിഭവങ്ങള്ക്കും ദൗര്ബല്യം നേര് എ ദൗര്ബല്യം നേരിട്ട് കൊണ്ടിരിക്കുകയാണ് നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഒര് മേഖലയിലും എന്താ പറയുക കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് പിന്നെ ഇപ്പം നമുക്ക് ഈ പറഞ്ഞമാതിരി പ്രൈവറ്റ് മേഖലയില് കൂടുതലും യൂണിയനുകളുടെ കളികള് അപ്പോൾ അവിടെയും വ്യവസായം അതല്ലെങ്കിൽ പുരോഗതിയെന്ന് പറയുന്നത് ഒരു ചോദ്യ ചിഹ്നമാണ് അതായത് പുരോഗതിയിലേക്ക് പോകാനായിട്ട് നാം നമ്മളെ തന്നെയാണ് സമ്മതിക്കാത്തത്